ഞാൻ കൈ കൊണ്ടൊരു കാർഡുണ്ടാക്കിയിട്ടുണ്ട് ബർത്ത് ഡേ കാർഡ് വെഡ്ഡിങ്ങ് കാർഡ് ഇങ്ങനെയുള്ള ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ ഞാൻ ധാരാളമുണ്ടാക്കിയിട്ടുണ്ട് അതുണ്ടാക്കുവാനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട് പിതാവിനും മാതാവിനും കൊടുത്തിട്ടുണ്ട് പിന്നെ വെഡ്ഡിങ്ങ് കാർഡ് ഞങ്ങൾ എന്നാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേർക്ക് ബർത്ത് ഡേ കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് കാർഡൊക്കെ പിള്ളേർ ക്രിസ്മസ് ഫ്രണ്ടിനു ഗിഫ്റ്റ് കൊടുക്കാൻ നേരം ക്രിസ്മസ് കാർഡ് തന്നത്താനെയാണുണ്ടാക്കുന്നത് അതുണ്ടാക്കാമെന്നു പറഞ്ഞാൽ നമ്മളീ കടയിൽ നിന്നു വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻറ്റേതായ അവർ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവർ തരുന്ന നമ്മൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് അതു ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അതു ചെയ്യുമ്പോഴത്തേക്കും നമുക്കു തന്നെ ഒരു ആത്മസംതൃപ്തിയുണ്ടാകും നമ്മൾ തന്നത്താനെ ചെയ്തതാണല്ലോ നമ്മുടെ കരങ്ങൾ കൊണ്ടത് ചെയ്യുമ്പോഴത്തേക്കും അതു കൂടുതൽ ഭംഗിയാക്കാനും സാധിക്കുമല്ലോ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നല്ലതായിട്ടു വരക്കാനും അത് എഴുത് എഴുതാനും കൊട്ടേഷനൊക്കെ നന്നായിട്ടെഴുതാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ നല്ല നല്ല കാര്യങ്ങളും നമുക്ക് നല്ല ദൈവ വചനങ്ങളാണെങ്കിലും മനസ്സിൽ തട്ടുന്ന ഓരോ വാക്കുകളാണെങ്കിലും മഹാത്മാക്കളുടെ കാര്യങ്ങളാണെങ്കിലൊക്കെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ കൂടുതലായിട്ടു നല്ല ചിത്രങ്ങളൊക്കെ ക്രിസ്മസ്സിനൊക്കെ ഫേമാണ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സാന്താക്ലോസിൻ്റെ പടമൊക്കെ നന്നായിട്ടു വരച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടെഴുതി അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഫാദേഴ്സ് ഡേക്ക് കാർഡുണ്ടാക്കുമ്പോഴത്തേക്കും ഫാദറിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചോദിച്ചറിയുമോ പിക്ച്ചറൊക്കെ വരച്ച് അങ്ങനെ ചെയ്യാനുണ്ട് മദേഴ്സ് ഡേ ആണെങ്കിലും അമ്മമാരുടെ പ്രാധാന്യം ഇന്നു ലോകത്ത് നമുക്കത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം അതേക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടെഴുതി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും വെഡ്ഡിങ്ങ് ഡേ ആകുമ്പോഴത്തേക്കും പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചോ അതുമായിട്ടുള്ള കാര്യങ്ങളെഴുതി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബർത്ത് ഡേ കാർഡാകുമ്പോഴത്തേക്കും ബർത്ത് ഡേയിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയും നല്ല നല്ല കൊട്ടേഷനൊക്കെ വായിക്കുന്നത് അതു നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടു തന്നെ കൈ കൊണ്ട് കൈകൾ കൊണ്ടുണ്ടാക്കിയ കാർഡ് നല്ല നല്ല നന്നായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം